ഹലോ എന്താണ് വേണ്ടത്

നിങ്ങൾക്ക് ഏത് ചായ ആണ് വേണ്ടത് കട്ടൻ ചായ ഉണ്ട് ഇഞ്ചിയിട്ട ചായ ഉണ്ട് ഗ്രീൻ ടീ ഉണ്ട് ഏതാണ് വേണ്ടത് എന്ത് എന്തോയിച്ചെ ഉണ്ട് ഉണ്ട് ഉണ്ട് അതിന് ഇരുപത്തി അഞ്ച് റുപ്പ്യാട്ടോ അതിന് ഇരുപത് ആ അത് നല്ല സ്പെഷ്യലാണ് സ്പെഷ്യലായിട്ട് എന്ത് ഐറ്റാണ് വേണ്ടത് ആ കടി എന്താണ് വേണ്ടത് പഴം പൊരിയുണ്ട് വട ഉണ്ട് ഉള്ളിവട ഉണ്ട് കട്ലറ്റ് ഉണ്ട് കൽത്തപ്പം ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഏതാണ് വേണ്ടത് എന്ത് എന്ത് ആ ഉണ്ട് ഉണ്ട് വേണ്ടത് എത്ര ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ആ എപ്പം പതിനഞ്ച് രൂപ ഞാൻ പെട്ടെന്നെടുക്കാം കേട്ടോ